എൻ്റെ മതം ഹിന്ദുവാണ് പിന്നെ ഞങ്ങള് ഏറ്റവും കൂടുതല് ആഘോഷിക്കുന്നത് ആഘോഷിക്കുന്നത് അല്ല ഞാന് ഒരു കഥയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഓരോരുത്തർ ഓരോ ആഘോഷങ്ങൾ ഓരോ രീതിയിൽ ഉണ്ടല്ലോ ഞങ്ങളെ ശിവരാത്രി ആഘോഷിക്കാറുണ്ട് നവമി ആഘോഷിക്കാറുണ്ട് വിനായക ചതുർഥി ആഘോഷിക്കാറുണ്ട് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കാറുണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വിനയ ചതുർത്ഥിനെ കുറിച്ചാണ് ഈ ഈ ദേവന്മാരുടെ പൂജകളുടെ ഏറ്റവും കൂടുതൽ പൂജിക്കപെടുന്ന ദൈവം അല്ലെങ്കില് ഏതൊരു അമ്പലത്തിലും പൂജിക്കപെടുന്ന ഒരു ദൈവം ഉണ്ടെങ്കില് അത് ഗണപതിയാണ് വിനായകനാണ് കാരണം ഉപദേവതകൾ ഏത് രീതിയിൽ കണക്കാകുവാണെ വിനായകന് അതിൻ്റെതായ ഒരു സ്ഥാനം ഉണ്ട് പിന്നെ വിനായക ചതുർഥി എന്ന് പറയുന്നത് പിന്നെ വിനായകൻ്റെ ജനന ദിവസം അനുബന്ധിച്ച് പിന്നെ ഉത്തരേന്ത്യയിലാണ് ഇവിടെ അങ്ങനെ കാണുന്നില്ല പിന്നെ അതായത് ഗണപതിൻ്റെ ഒരു വിഗ്രഹം ഉണ്ടാക്കിട്ട് അത് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ദിവസങ്ങൾക്ക് ഉള്ളില് വീട്ടില് വെച്ച് ആരാധിച്ചതിന് ശേഷം അത് കൊണ്ട് പോയിട്ട് കടലിലോ പുഴയിലോ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അത് നിർമാർജനം ചെയ്യണം അത് ഉള്ളിലോട്ട് ഒഴുക്കി വിടണം എന്നാണ് വിശ്വാസം വരുന്നത് പിന്നെ അന്ന് അന്നത്തെ ദിവസം അവരുടെ ഒരു ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് മോദകം ഉണ്ടാകും മോദകം ഭയങ്കര ഇഷ്ടമാണ് വിനായകന് എന്ന് എല്ലാ കഥകളിലും പുരാണങ്ങളിലും ഉണ്ട് മോദകം ഉണ്ടാക്കും അത് ഒരു നേർച്ച പോലെ കഴിക്കും അതേപോലെതന്നെ പിന്നെ ചോറ് ആനയൂട്ട് നടത്തുകയും ചെയ്യും